ദൈനം ദിന സംഭാഷണങ്ങളിത മലയാളി ഉപയോഗിക്കുന്ന ഭാഷ മലയാളമാണ് പരസ്പ്പരം സംഭാഷണങ്ങളിത എല്ലാവരും ഉപയോഗിക്കുന്ന പൊതുവായ ഒരു ഭാഷ എന്ന് പറയുന്നത് മലയാളമാണ് അതിൽ ഒരു മനുഷ്യൻ തമ്മിൽ കാണുമ്പോൾ ആ എന്തുണ്ട് വിശേഷം സുഖമാണോ ആ ഒരു ഭാഷാശൈലിയാണ് സ്ഥിരമായിട്ട് ഉപയോഗിക്കാറ് ഓരോ മനുഷ്യനും എപ്പോഴും തമ്മിൽ കാണുന്നത് ഒരു ഒരു ഓരോരുത്തരെ ഓരോ സമയത്ത് കാണുമ്പോൾ എന്തുണ്ട് വിശേഷം അല്ലെങ്കിൽ ആ എവിടെ പോകുന്നു എന്താണ് എങ്ങനെയാണ് അല്ലെങ്കിൽ ആ ആ എന്തെടുക്കുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭാഷകളൊക്കെയാണ് സാധാരണ ആ ചില പൊതുവായ പദപ്രയോഗങ്ങൾ അതൊക്കെയാണ് എവിടെ പോകുവാണ് എന്തെടുക്കുവാണ് എന്തുണ്ട് വിശേഷം അല്ലെങ്കിൽ വീട്ടിൽ എല്ലാവർക്കും സുഖാണോ അല്ല അങ്ങനെയുള്ള ചില പൊതുവായ പദപ്രയോഗങ്ങൾ മാത്രമാണ് അങ്ങനെ മലയാളഭാഷയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പം പെട്ടെന്ന് നമ്മൾ ഒരു ഇപ്പം പുതിയതായിട്ട് ഒരു വ്യക്തിയെ കാണുമ്പോൾ ആ ഹലോ ആ എന്താണ് വിശേഷം കണ്ടിട്ട് കുറേ കാലമായല്ലോ എന്നൊക്കെ ഇപ്പം പറഞ്ഞു നമ്മൾ അവർ അവരുമായിട്ട് ഒരൂ ഭാഷ ശൈലിയിൽ മലയാളഭാഷയിൽ തന്നെ സംസാരിക്കാറുണ്ട് അല്ലെ ഫോണിൽ കൂടെ ആണെങ്കിലും ആ എന്തുണ്ട് വിശേഷം കണ്ടിട്ട് കുറേ ആയല്ലോ അല്ലെങ്കിൽ എവിടെ ആയിരുന്നു അല്ലെ എന്താണ് ജോലി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കൂടുതാലായിട്ടും സംസാരിക്കുക ഒരു ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ കാണുമ്പോൾ ആദ്യം ആ ഹലോ എന്തുണ്ട് എവിടെയാണ് എന്ന് ഇങ്ങനെയൊക്കെ പോകുന്നു കാര്യങ്ങൾ സുഖമാണോ എന്താണ് പണിയൊക്കെ ആ ഭക്ഷണം കഴിച്ചോ ആ എന്നൊക്കെയാണ് നമ്മൾ സാധാരണ പദപ്രയോഗങ്ങൾ ചോദിക്കാറുള്ളത് അങ്ങനെയൊക്കെ എല്ലാ മനുഷ്യരും പരസ്പ്പരം അങ്ങോട്ടുമിങ്ങോട്ടും സംസാരിക്കുകയും കാണുകയും വർത്തമാനം പറയുകയും ചെയ്യുന്നത് ഒരു പൊതുവായ ഒരു ഭാഷ എന്നു പറയുന്നത് ഹലോ ആ എന്തുണ്ട് വിശേഷം സുഖമാണോ അങ്ങനെ കുറേ കുറേ പദപ്രയോഗങ്ങളാണ് സാധാരണ നമ്മൾ നടത്താറുള്ളത് മലയാള ഭാഷയിൽ ഒത്തിരി ഉണ്ട് എല്ലാം പദപ്രയോഗങ്ങളും പരസ്പരം മനുഷ്യനാണ് ഒരു മനുഷ്യൻ ഒരു മനുഷ്യനെ സംബോധന ചെയ്യാനായി ഉപയോഗിക്കുന്ന ഭാഷ എന്നു പറയുന്നത് ഹലോ എന്താണ് വിശേഷം ആ എവിടെയായിരുന്നു സുഖമാണോ അല്ലെങ്കിൽ എവിടെ ആയിരുന്നു ജോലി എന്തായിരുന്നു പണി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സാധാരണ ചോദിക്കുകയും പറയുകയും ചെയ്യാറുള്ളത് എപ്പോഴും കുട്ടികളാണങ്കിൽ തന്നെ ആ ഹലോ ആ എടാ എന്നാ ഉണ്ട് വിശേഷം ആ നീ എവിടെ ആയിരുന്നു കണ്ടിട്ട് കുറേ ആയല്ലോ ആ ഇപ്പം എവിടെയാണ് പഠിക്കുന്നുണ്ടോ എത്രയിലാ പഠിക്കുന്നത് പരീക്ഷ ആയിരുന്നോ ഇങ്ങനെക്കെയുള്ള ചില കാര്യം ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾ സാധാരണ ചോദിക്കുക എവിടെ പോകുന്നു ആ ഇന്ന് എന്താണ് കഴിച്ചത് ആ കാപ്പി കുടിച്ചോ ചോറുണ്ടോ അതല്ലെങ്കിൽ വേറെ എന്താ വിശേഷം

കമ്മ്യൂണിക്കേറ്റ് മനുഷ്യന് പരസ്പ്പരം മനസ്സിലാക്കാനുള്ള ഒരു മലയാളിയെ സംബന്ധിച്ചു അങ്ങോട്ടുമിങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കാനുള്ള ഒരു ഭാഷ എന്നു പറയുന്നത് മലയാളമാണ് അതിൽ തന്നെ പല വാക്കുകളുളുണ്ട് എന്താണ് വിശേഷം ആ എവിടെ പോകുന്നു ആ അല്ലെങ്കിൽ എന്ത് എടുക്കുന്നു എവിടെ ആയിരുന്നു യാത്ര ആ സുഖമാണോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും ചോദിക്കാറും പറയറുമുള്ളത്